നമ്മുടെ വീടുകളിൽ വിവാഹത്തിന് പുരുഷൻ്റെ വീട്ടിൽ നിന്നു ആലോചന വരികയും അത് അത് പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് അവർ തമ്മിലുള്ള ജാതകം ഉണ്ടാവും ആ ജാതകത്തിൻ്റെ രണ്ടു പേർക്കും രണ്ടു പേരുടേയും ജാതകങ്ങൾ തമ്മിൽ ശരിക്ക് യോജിക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കും അതു കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ വീട്ടുകാരോട് ആയി സംസാരിച്ചു അവരുടെ കുടുംബ രീതികളൊക്കെ എങ്ങനെയാണ് താൽപ്പര്യമുണ്ടോ ആരോഗ്യസ്ഥിതികൾ എല്ലാം മറ്റുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അവർക്ക് തമ്മിൽ പെൺകുട്ടിക്കും ആണിനും ഇഷ്ട്ടമുണ്ടെങ്കിൽ മാത്രം ആ വിവാഹം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ രീതി ഇന്നാണെങ്കിൽ നമ്മൾ നമുക്കിപ്പോൾ ധാരാളം മാട്രിമോണിൻ്റെയൊക്കെ അങ്ങനെയുള്ള ഇത് ഉണ്ട് ധാരാളം പിന്നെ വിവാഹം വേദികൾ ആലോചിക്കാനുമൊക്കെ സൗകര്യത്തിന് നമുക്ക് മാര്യേജ് ബ്യുറോകളൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴി പലരും ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് കാരണം ഇപ്പഴ് വളരെ കുട്ടികളൊക്കെ ഒന്നോ രണ്ടോ പേര് പലരും പലയിടത്തൊക്കെ ആയിരിക്കും ജോലിയിൽ ഇരിക്കുന്നത് അവർ പ്രത്യേക ജീവി തരീതികളൊക്കെ ആയിരിക്കും അപ്പോൾ അവർ മാട്രിമോണിയിൽ നിന്ന് പ്രത്യേകം അവർ തെരഞ്ഞെടുക്കുകയും അവർ അത് ഇഷ്ട്പ്പെട്ടെങ്കിൽ അവരുടെ വിവാഹം അങ്ങനെ നിശ്ചയിക്കുകയും ചെയ്യും അത് മാത്രമല്ല മാട്രിമോണി വന്നു കഴിഞ്ഞു കഴിഞ്ഞ് എന്നാൽ ഇപ്പോഴത്തെ ഞാൻ അറിഞ്ഞു എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ തമ്മിൽ ബോയ്യും ഗേളും അവരും തമ്മിൽ ഇൻ്റ്റാക്ട് ചെയ്യും

അങ്ങനെ വിവാഹ ജീവിതം അവരും പിന്നെ അച്ഛനമ്മമാർ മാത്രം ആലോചിച്ചു കൊണ്ടു വരുന്നതിന് പകരം